ഹലോ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി അല്ലേ അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബുക്ക് ആയോ ഇല്ലയോ എന്നെനിക്ക് നോക്കാൻ പറ്റിയില്ല എൻ്റെ കൺ അത് ബുക്ക് ആയോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞു തരാമോ എൻ്റെ കൺസ്യൂമർ നമ്പറും ആധാർ ഐ ഡിയുടെ അവസാന നമ്പറും ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ആയോ ഇല്ലയോ എന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എൻ്റെ കൺസ്യൂമർ നമ്പർ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് അധാർ നമ്പറിൻറെ അവസാന അക്കം എന്ന് പറയുന്നത് ഏഴ് എട്ട് മൂന്ന് അഞ്ച് രണ്ട്